ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഒമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്ത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച്